റേഡിയോ ടെലിവിഷൻ അച്ചവി തുടങ്ങിയ മാധ്യമങ്ങളിൽ മലയാള ഭാഷ വഹിക്കുന്ന പങ്ക് ഏറെ വലുതാണ് കാരണം റേഡിയോയിലാണെങ്കിൽ നമ്മുടെ സംഭാഷണത്തിലൂടെ നമ്മൾ ഫുള്ള് ഉപയോഗിക്കുന്നത് മലയാളം മലയാളം തന്നെയാണ് ആകാശവാണി ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ് ടെലിവിഷനാണെങ്കിലും ദൃശ്യമാധ്യമത്തിൽ ദൃശ്യത്തിലൂടെ നമുക്ക് മലയാളത്തിൻ്റെ ആ മലയാള ഭാഷയുടെ ആ എന്താണ് പറയുന്നത് ആ മാധുര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നു അതുപോലെ തന്നെ അച്ചടി രംഗത്തും മലയാള ഭാഷ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു അതായത് പത്രം അതുപോലുള്ള മാസികകൾ വാരികകൾ ഇതിലൂടെയെല്ലാം മലയാള ഫാഷയുടെ ആ മഹാത്മ്യമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ മലയാള ഭാഷ ഇന്ന് നമ്മുടെ ശ്രേഷ്ഠ ഫാഷയാണ് മലയാള ഭാഷയെന്നു പറയുന്നത് അതുപോലെതന്നെ ഇന്ന് ഏതു തുറയിൽ ചെന്നാലും മലയാള ഭാഷയെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും എല്ലാം ചെയ്യുന്നു അതുപോലെ മലയാള ഭാഷയാണ് മലയാള ഭാഷയെ നമ്മുടെ അമ്മയായിട്ട് നമ്മൾ മാതൃഭാഷയായിട്ട് നമ്മൾ കണക്കാക്കുന്നു അതുകൊണ്ടുതന്നെ മാതൃഭാഷ ഏതു രീതിയിലും ഏതു തരത്തിൽ ചെന്നാലും മലയാള ഭാഷയെ എല്ലാവരും അംഗീകരിക്കുന്നു മലയാളിയാണ് എന്നുള്ളതിൽ നമ്മൾ അഭിമാനിക്കുന്നു അതുപോലെതന്നെ എന്താ പറയുക മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മലയാള ഭാഷ തന്നെയാണ് അത് ഏതു സ്ഥലങ്ങളിൽ ചെന്നാലും ഒരു ഒരു മലയാള വാർത്തയെങ്കിലും അല്ലെങ്കിൽ ഒരു മലയാളി എങ്കിലും ഇല്ലാത്ത സ്ഥലം ഇല്ലെന്ന് പറയാം പറയാറുണ്ട് അതുപോലെതന്നെ ആണ് നമ്മുടെ മലയാള ഭാഷ മലയാള ഭാഷ ഇന്ന് ഇപ്പോൾ ചില ചിലരൊക്കെ പറയും മലയാള ഭാഷ അന്യം നിന്നുപോകുന്നു പോകുന്ന ഒരവസ്ഥ വരുന്നുണ്ട് എന്നു പറയാറുണ്ട് കാരണം എന്നു വച്ചാൽ മറ്റുള്ള ഇംഗ്ലീഷ് മുതലായ ഭാഷകൾ നമുക്കാവശ്യമാണ് എങ്കിൽപ്പോലും നമ്മുടെ അതിൻ്റെ എന്താണ് പിടിച്ചിതാക്കുന്ന രീതിയിൽ ഇംഗ്ലീഷും കാര്യങ്ങളും ഒക്കെ കൂടുന്ന ഈ എഡജ്യൂക്കേഷൻ കൂടുന്നതിനനുസരിച്ച് പിന്നെ ആളുകൾ മലയാളത്തെ മറക്കുന്നു എന്നൊരു കാര്യം പറയാനുണ്ട് പൊതുവെ എന്നാൽ നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ എന്താണ് മാധ്യമ രംഗത്തും എല്ലാം മലയാളം കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിന് നമ്മളും നമ്മൾ ആ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ പണ്ടുകാലത്ത് ഈ റേഡിയോയിൽ റേഡിയോ അങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നത് എന്താണ് വാമൊഴിയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഏറ്റവും ആദ്യകാലത്ത് ഇതിൽ റേഡിയോ ടെലിവിഷൻ റേഡിയോയിലൂടെ നമ്മൾ സംസാരിക്കും ഓരോരുത്തർ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നു വാർത്തകൾ കേൾക്കുന്നു പാട്ടുകൾ കേൾക്കുന്നു അങ്ങനെയുള്ള നാടകങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഈ മലയാള ഭാഷയിലൂടെ കേട്ടുകൊണ്ടിരുന്നത് കേട്ടുകൊണ്ടിരുന്നത് കേട്ടുകൊണ്ടിരുന്നു എന്നാൽ ഇപ്പം നമ്മൾ കുറച്ചുകൂടി പുരോഗമനം ചിലപ്പോൾ റേഡിയോയൊന്നും നമുക്ക് കാണാനില്ല ഇപ്പോൾ നമ്മൾ ടെലിവിഷൻ ഉപയോഗിക്കുന്നു അതുപോലെതന്നെ വിവിധ മാസികകൾ ഉപയോഗിക്കുന്നു അതിലെല്ലാം മലയാള ഭാഷയുടെ പ്രാധാന്യമാണ് എടുത്തു കാണിക്കുന്നത്